ഞാൻ ഇന്ത്യയിൽ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം താജ്മഹാൽ ആ താജ്മഹാൽ ഹരിഗർ ഫോർട്ട് തുടങ്ങിയ സ്ഥലങ്ങളാണ് എനിക്ക് സന്ദർശിക്കാൻ ആഗ്രഹം ജമ്മുകാശ്മീർ ലഡാക്ക് പോലെയുള്ള സ്ഥലങ്ങളാണ് എനിക്ക് സന്ദർശിക്കാൻ താൽപര്യം ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹാൽ എനിക്ക് കാണണമെന്ന് വളരേയധികം ആഗ്രഹമുണ്ട് അതേപോലെത്തന്നെ ഹരിഹർ ഫോർട്ട് കൊടുമുടികളുടെ റാണി എന്നറിയപ്പെടുന്ന ഹരിഹർ ഫോർട്ടിൽ പോവണമെന്ന് എനിക്ക് വളരെയേറെ ആഗ്രഹമുണ്ട് പോരാതെ ഹിമാലയം വിൻ്റർ സീസൺ എക്സ്പ്ലോർ ചെയ്യണമെന്ന് എനിക്ക് വളരെയധികം അതിൻ്റെ ഒരു മിനിയേച്ചർ വേഷനാണല്ലോ ഹിമാലയം ഹിമാലയത്തിൽപ്പോയി അവിടുത്തെ കൾച്ചറും അവിടുത്തെ സാഹചര്യങ്ങളുമായി ഒന്ന് അനുഭവിക്കണമെന്ന് എനിക്ക് താൽപര്യമുണ്ട് ഇപ്പോൾ എൻ്റെ നിർദ്ദേശത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോവാനുണ്ടായാൽ അപ്പോൾ അതിനു ഞാൻ നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളാണ് ഹിമാലയൻ ഹിമാലയ ഹരിഗർ ഫോർട്ട്

തുടങ്ങിയ സ്ഥലങ്ങൾ ഈ സ്ഥലങ്ങൾ വളരെ വളരെയധികം പ്രശസ്തവും വളരെയധികം ഭംഗിയുള്ളതുമാണ് താജ്മഹൽ പോലെയുള്ള സ്ഥലങ്ങൾ ലോകാത്ഭുതങ്ങളിലൊന്നാണ് വളരെയധികം ആൾക്കാർ കൂടുതൽ വളരെയധികം ആൾക്കാർ കൂടെ പോകുന്ന സ്ഥലമാണ് എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് അവിടെ വളരെ രീതിയിൽ പെട്ടെന്നുതന്നെ എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഇതിൽ ഒട്ടനമധി സന്ദർശിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് ഇതിലെനിക്ക് ഏറ്റവും കൂടുതലിഷ്ടമുള്ളത് ഹരിവർ ഫോർട്ട് ഹിമാലയൻ ഹിമാലയത്തിൽ പോയിട്ട് മഞ്ഞ് എക്സ്പ്ലോർ ചെയ്യണം എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് ലഡാക്ക് അതുപോലെതന്നെ ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹാൽ ഇവിടെയൊക്കെ പോകണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്